ഇപ്പം പാസ്പോർട്ട് തന്നെ പുതുക്കാനായിട്ട് എന്തൊക്കെ വേണമെന്നറിയില്ല മുന്നേ ഒക്കെ ജോലിത്തിരക്ക് കാര്യങ്ങളുമൊക്കെ ഒക്കെ ആയത് കൊണ്ടെനിക്ക് പുറം ലോകം പുറത്ത് പുറംരാജ്യത്ത് കാണാനോ ആ എനിക്കത് ആസ്വദിക്കാനൊന്നും കഴിഞ്ഞില്ല ഇപ്പഴാണ് എനിക്കതിനുള്ള ഒരു സമയം കിട്ടിയത് റിട്ടയേർഡ് ആയത് കൊണ്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള സമയം കിട്ടിയിട്ടുണ്ട് അപ്പം ആ പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്നൊന്നും എനിക്കറിയില്ല അവിടെ നിന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ പാസ്പോർട്ട് പുതുക്കാനായിട്ട് രണ്ട് ഫോട്ടോ പാൻകാർഡ് ആധാറ് ഇതൊക്കെ വേണമെന്നാണ് പറഞ്ഞത് അത് കൂടാതെ എന്തെങ്കിലും വേണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത് ഇപ്പം എന്തൊക്കെ വേണം എന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല മുന്നേ പാസ്പോർട്ട് അടിച്ചതല്ലല്ലോ പാസ്പോർട്ട് പുതുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതികളില്ലേ അതുകൊണ്ടാണ് നമ്മളിപ്പം ചോദിച്ചത്